മറ്റു ഉത്തരവാദിത്തങ്ങളോടും താല്പര്യങ്ങളോടും ഒപ്പം നെയ്ത്തു കൊണ്ടു പോകുക എന്നു പറയുന്നത് എന്നെ സംബന്ധിച്ചു കുറച്ചു ടാസ്ക്കുള്ളൊരു പണിയാണ് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പം എന്നെ സംബന്ധിച്ചു എനിക്ക് ഒത്തിരി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് സ്കൂളിൽ ആണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നത് വളരെ കുറച്ചു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് പാഷൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിനെ കൊണ്ടു പോകാൻ പറ്റും അതായത് നമുക്ക് പണിക്ക് ഇടയിൽ സമയം കണ്ടെത്താൻ പറ്റും നമുക്ക് ഒരുപാട് പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും വിദ്യകളുണ്ടോ എന്നു ചോദിച്ചാൽ ശരിക്കും നമ്മൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഇത് താല്പര്യമുള്ള സമയം തൊട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വയ്ക്കാറുണ്ട് അതായത് ഞാൻ ഇനി എനിക്ക് എന്ത് തിരക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പം തയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്ത്തിനും തുന്നലിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു സമയം മാറ്റിവയ്ക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നെയ്ത്ത് തുന്നൽ എന്നു പറയുന്നത് അത് അതായത് പുതിയ രീതിയിലുള്ള തുണിത്തരങ്ങളൊക്കെ വിപണിയിൽ ഇറങ്ങുമ്പം അതൊക്കെ മേടിച്ചു എൻ്റേതായ രീതീൽ അത് പല രീതിയിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതീൽ അതിനെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് തിരക്കുകൾ ഉണ്ട് എന്നാൽ പോലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നു പറയു ത് വളരെ വലിയ ഒരു കാര്യമാണ് അപ്പം ഉത്തരവാദത്തങ്ങൾക്ക് ഇടയിൽ നമുക്ക് താല്പര്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അതായത് ബാക്കി എല്ലാ പണിത്തിരക്കുകൾക്ക് ഇടയിലും നമുക്ക് ഇതിനെ കൊണ്ടു പോവാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് പ്രത്യേകിച്ചു വിദ്യകൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് സമയമോ സാഹചര്യമോ ഉണ്ടോ നമുക്ക് നല്ല രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂടുതലായിട്ടും അതിനോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം വരും നമുക്ക് അതിനോട് ഒരു ഒരു സന്നദ്ധത ഉണ്ടായിരിക്കും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ അതക്കെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഒത്തിരി സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിലെ പണികളെന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചു വീട്ടിലെ പണികൾ എന്നു പറയുന്നത് ഒത്തിരി കൂടുതലാണ് അതായത് രാവിലെ തൊട്ട് രാത്രി ആകുന്ന ഇടം വരെ വീട്ടിലെ പണികൾ തീർന്നിട്ട് സമയം നമ്മൾ ഒരിക്കലും കിട്ടില്ല പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഇതിൻ്റെ ശരിക്ക് ഒരു വിദ്യ തന്നെയാണ് നമുക്ക് തുന്നാൻ അറിയാമെങ്കിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത ചിലവുകൾ വച്ചു നോക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ അത് വളരെ വലിയ ഒരു കാര്യമാണ് കാരണം നമുക്ക് ഇപ്പം ഒരു കടയിൽ പോയി അല്ലെങ്കിൽ ഒരു വിപണിയിൽ പോയി നമുക്ക് തുണിത്തരങ്ങൾ മേടിക്കുക എന്നു പറയുന്നത് വളരെ ചിലവേറിയ ഒരു പ്രക്രിയ ആണ് അപ്പം ഒത്തിരി പൈസയാകുന്ന ഒരു കാര്യത്തിന് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കഴിവുണ്ട് നമുക്ക് അതിനോട് ഒരു താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു രംഗത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാം നമ്മുടെ സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുകയും ഒത്തിരി ജീവിത തിരക്കുകളൊക്കെ ഉണ്ട് എല്ലാ മനുഷ്യർക്കും പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെിൽ നമുക്ക് കൂടുതലായിട്ട് അതിലോട്ട് ശ്രദ്ധ കേന്ദ്രകരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷവും അതായത് ഒരുപാട് നമുക്ക് നമ്മുടെ ഒരു സ്ട്രെസ്സ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വിദ്യകളെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചു ഒറ്റ അടിക്ക് ചെയ്തു തീർക്കണം എന്ന ഒരു ഇതില്ല ഇപ്പം ഞാൻ ഒരു തുണി ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ അതിനെ വെട്ടി വയ്ക്കുന്നു അതുപോലെ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ അതിനെ തയ്ക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ബാക്കി പണികളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ അതുപോലെ തന്നെ ജീവിത ചിലവുകൾ ഒത്തിരി കൂടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ടും നമുക്ക് പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒത്തിരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നു പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നെയ്ത്ത് തുന്നൽ എന്നൊക്കെ പറയുന്നത് കുഞ്ഞിലേ തൊട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വളരെ നല്ല ഒരു കാര്യമാണ് അതായത് ഒരു കഴിവുള്ള ആളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിന് അകത്തോട്ട് കൂടുതൽ കേന്ദ്രീകരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പാഷനബിൾ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഈ പറയുന്ന നെയ്ത്തും തുന്നലും കൊണ്ടു പോവാൻ പറ്റുമെന്നാണ് അപ്പം സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് കാരണം അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയാൽ നമ്മുടെ ഒരു ജീവിതോപാധി അല്ലെങ്കിൽ ഒരു ജീവിത മാർഗ്ഗം എന്നു പറയുന്നത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മുടെ താല്പര്യമാണ് നമ്മുടെ ഇഷ്ടമാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിനുള്ള സമയം നമ്മളാണ് കണ്ടെത്തേണ്ടത് സാഹചര്യം നമ്മളാണ് കണ്ടെത്തേണ്ടത് അപ്പം അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് നമുക്ക് മറ്റു ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഉണ്ട് നമുക്ക് ഇതിനോട് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടാൻ വേണ്ടിയി ട്ട് പറ്റും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നെയ്ത്തെന്നു പറയുന്നത് ശരിക്ക് ഒരു കലയാണ് നമുക്ക് ഇന്നത്തെ ഒരു ഫാഷണബിൾ ആയിട്ടുള്ള ലോകത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തുണിത്തരങ്ങൾ നെയ്തു എടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ചു തുണികൾ കിട്ടും അങ്ങനെയൊക്കെ പോയി തുണികൾ എടുക്കുക ആ വില കുറച്ചു കിട്ടുന്ന തുണികളുടെ ഡിസൈൻ ചെയ്യുക നമുക്ക് ആ തുണികളായിട്ട് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് തുണിത്തരങ്ങൾ ഉടുപ്പായിട്ട് അതുപോലെ തന്നെ ബ്ലൗസ് ആയിട്ട് ഫ്രോക്ക് ആയിട്ട് അങ്ങനെ പല രീതിയിൽ വ്യത്യസ്തമാർന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ആയിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടും പറ്റും പണികൾ ഒത്തിരി ഉണ്ട് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചെന്നു പറയുന്നത് നമുക്ക് പണികൾ ഒരിക്കലും തീരുന്നില്ല രാത്രി വരെയുള്ള നമ്മുടെ പണികൾ ദൈനംദിന ജീവിത്തിന് ഇടയ്ക്കുള്ള നമ്മുടെ പണികൾ ആ സമയങ്ങളും നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ഒരു കഴിവ് ഇരിക്കുന്നത് അത് ശരിക്ക് ഒരു വിദ്യ എന്നു പറയുന്നതിൽ ഉപരി നമ്മുടെ ആ ഒരു ഇഷ്ടത്തെ നമ്മൾ കൂടുതൽ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നമക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുക എന്നു പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് പണിക്ക് ഇടയിൽ സമയം കണ്ടെത്തുക അതുപോലെ നമുക്ക് പ്രചോദനം വേറെ ഒരാൾ തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നീ ഇത് ചെയ്തോ നീ നന്നായിട്ട് നെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട് തുന്നുന്നുണ്ടല്ലോ നിന്നെ കൊണ്ട് ഇത് പറ്റും ഇപ്പം നമുക്ക് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചു ഭർത്താവോ അതുപോലെ തന്നെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ എല്ലാവരും കൂടെ നിൽക്കുകയാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു താല്പര്യത്തെ നമ്മുടെ ഇഷ്ടത്തെ കൂടുതൽ വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നത്തെ സമൂഹത്തിൽ സമൂഹജീവിതത്തിൽ നമ്മൾ ഒരു സമൂഹ ജീവിയായിരിക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു കഴിവ് ഒരു എന്തെങ്കിലുമൊരു വിദ്യ അറിഞ്ഞിരിക്കുക എന്നു പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് നെയ്ത്ത് തുന്നലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിന്നു പോകാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിത മാർഗ്ഗം കണ്ടെത്താൻ പറ്റുന്ന ഒരു രീതിയാണ് അത് പണിക്ക് ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ളതു കൊണ്ടാണ് നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾക്ക് ഇടയിൽ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളിലോട്ട് നമുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം പരമാവധി നമുക്ക് ഇഷ്ട്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെന്നു വയ്ക്കുക നമുക്ക് സ്വന്തമായിട്ട് ഒ രു പ്രേചോദനം നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് ഈ ഒരു കഴിവുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമാർഗമായിട്ട് ഇനി ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും അപ്പം എൻ്റെ രു കഴിവ് വളർത്തി എടുക്കാമെന്നു പറയുന്നത് വളരേ വലിയ ഒരുകാര്യമാണ് അപ്പം നമ്മുടെ താല്പര്യങ്ങളോടും മറ്റു ഉത്തരവാദിത്തങ്ങളോടും ഒപ്പം ഈ നെയ്ത്ത് കൊണ്ടു പോകുക എന്നു പറയുന്നത് എന്നെ സംബന്ധിച്ചു വളരെ വലിയ ഒരു കാര്യമാണ് എനിക്ക് ഒത്തിരി ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് നെയ്ത്തിനും തുന്നലിനും സമയം കണ്ടെത്തുന്നതിനും നമ്മുടെ പണിക്ക് ഇടയിലെ പ്രചോദനം നിലനിർത്തുന്നതിനും എൻ്റെ വിദ്യ എന്നു പറയുന്നത് നമുക്ക് ഇഷ്ട്ടപ്പെട്ട കാര്യത്തിൽ നമ്മുടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇഷ്ട്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുക നമ്മളെ സന്തോഷവാന്മാരായിട്ട് സന്തോഷവാന്മാരും സന്തോഷവതികളും ആയിട്ടിരിക്കുക